കേരളത്തിൽ ധാരാളം സാംസ്കാരിക പരിപാടികളുണ്ട് മതപരമായ പരിപാടികളുണ്ട് സാംസ്കാരിക പരിപാടികൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഓണാഘോഷം കേരളത്തിൻ്റെ സാംസ്കാരിക ആഘോഷമാണ് ഓണം ഓണം ഒരു വിളവെടപ്പിൻ്റെ ഉത്സവം കൂടിയാണ് അത് കേരളീയർ ഒന്നാകെ ലോകത്തിൽ എമ്പാടുമുള്ള കേരളത്തിലെ ജനങ്ങൾ ലോകത്തെ എവിടെ ആയിരുന്നാലും അവർ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്നത് നമ്മൾ പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്ന ചക്രവർത്തി തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടി തിരിച്ചു എത്തുന്നു വർഷത്തിൽ ഒരിക്കൽ വന്നു തൻ്റെ പ്രജകളെ കാണാൻ വരുന്നു എന്നാണ് ഈ ഓണത്തിൻ്റെ ഐതിഹ്യം അപ്പം ഓണം നമ്മുടെ സാംസ്കാരിക തനിമയെ വിളിച്ചോതുന്ന ഒരു ഉത്സവമാണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് ഓണത്തെ കുറിച്ചുള്ള മനോഹരമായ ചൊല്ല് അതായത് എത്ര ബുദ്ധിമുട്ടുള്ള എത്ര ദരിദ്രനായാലും ഓണം ആഘോഷം അവന് പ്രധാനപ്പെട്ടതാണ് അവൻ ഏത് രീതിയിലും എത്ര കഷ്ടപ്പെട്ടും ഓണം ആഘോഷിക്കും ആ മഹാബലിയെ വരവേൽക്കും എന്നൊക്കെയാണ് ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യം അതാണ് പിന്നെ ക്രിസ്മസ് ആഘോഷം ക്രിസ്മസ് തെയ്യം മണ്ഡലപൂജ എന്നിവയൊക്കെ ആഘോഷങ്ങളൊക്കെ നമ്മുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിസ്മസ് ക്രിസ്തു മതത്തിലെ വിശ്വാസികൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് ക്രിസ്തു ലോക രക്ഷകനാണെന്നും ക്രിസ്തുവിൻ്റെ ജനനം മനുഷ്യ രാശിയുടെ നന്മക്ക് വേണ്ടിയാണെന്നും ഒക്കെയാണ് ഈ ക്രിസ്മസിൻ്റെ ക്രിസ്മസിൻ്റെ ഐതിഹ്യം അതുപോലെ തന്നെ തെയ്യം എന്നു പറയുന്നത് കേരളത്തിൽ നേരത്തെ നിലനിരുന്ന ഒരു അനുഷ്ഠാന അനുഷ്ഠാന കലയാണ് ഇപ്പോൾ ഈ കലയെക്കുറിച്ചു വളരെ വ്യക്തമായ വിവരണങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല അതുപോലെ മണ്ഡല പൂജ എന്ന് പറയുന്നത് ശബരിമലയിലെ ബന്ധപ്പെട്ട ആ ഒരു ഹിന്ദു മതത്തിൻ്റെ വിശ്വാസവുമായിബന്ധപ്പെട്ട ഒരു പൂജയാണ് മണ്ഡല പൂജ എന്നുള്ളത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നവംബർ മുതൽ ജനുവരിയുള്ള മാസങ്ങളിൽ മണ്ഡല മാസമായി കാണുകയും പുരുഷനും കൂടുതലും പുരുഷന്മാരും ആർത്തവ വിരാമം വന്ന സ്ത്രീകളുമാണ് ശബരിമലയിലേക്ക് പ്രവേശിക്കുക അവര് നീണ്ട കാലത്തെ നോമ്പെടുത്ത് വ്രതമൊക്കെ അനുഷ്ഠിച്ച് ശരീരശുദ്ധിയും ഹൃദയശുദ്ധിയും ഒക്കെ വരുത്തിയാണ് ശബരിമലയിലേക്ക് പുറപ്പെടുന്നത് ഇത്തരത്തിൽ കേരളത്തിൻ്റെ ആഘോഷിക്കുന്ന സാംസ്കാരിക ആ ഉത്സവങ്ങൾക്കും പരിപാടികൾക്കും വളരെയധികം പ്രസക്തി ഉണ്ട് സംസ്ഥാനത്തിൻ്റെ വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളെയും സമുദായത്തെയും സമുദായ സ്നേഹത്തെയും സമുദായ വിശ്വാസങ്ങളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകുന്നുണ്ട് ഇത്തരത്തിൽ കേരളം വൈവിധ്യങ്ങളുടെ ഒരു നാടാണ് മതങ്ങൾ ഏറെയുണ്ട് ജാതികൾ ഏറെയുണ്ട് എങ്കിലും എല്ലാവരും ഒരേ മനസ്സോടു കൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കേരളത്തിലെ കാണാൻ സാധിക്കുന്നത്